നമുക്ക് ഏറ്റവും ഉചിതമായി ലോൺ എടുക്കാൻ എടുക്കാൻ പറ്റുന്നത് നമുക്ക് മുഖാമുഖമായി ചെന്നെടുക്കുന്നതാണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നത് അത്രയും സുരക്ഷിതമല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് പല ആത്മഹത്യ കേസുകൾ കാണാം ലോൺ എടുത്തതിനു ശേഷം അവർ ഇന്ട്രെസ്റ് കുത്തനെ കേറ്റിയും അവസാനം അടച്ചില്ലെങ്കിൽ നമ്മളെ അവർ ഭീഷണിപ്പെടുത്തുകയും പല രീതിയിലുള്ള ആക്രമണ ആക്രമണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അത്കൊണ്ട് നമുക്ക് എപ്പോഴും നല്ലത് മുഖാമുഖം നേരിട്ട് പോയി ലോൺ എടുക്കുന്നതാണ് ഏറ്റവും വളരെ നല്ല കാര്യം അല്ലാണ്ടു തന്നെ ഇതിൽ എന്തൊക്കെ ചതിയുണ്ടെന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാനും കഴിയില്ല അതുകൊണ്ട് ഏറ്റവും നല്ലതാക്കും മുഖാമുഖം പോയി ലോൺ എടുക്കേണ്ടതാണ് ഏറ്റവും നല്ലത് ഉചിതമായ തീരുമാനം പിന്നെ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഒറിജിനലി സർട്ടിഫിക്കറ്റ്സൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ അത് അതുകൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നുവെന്ന് നമുക്കൊന്നും അറിയില്ല അതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് അത് നമുക്ക് തന്നെയാണത് ബാധിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ലത് നേരിട്ട് മുഖാമുഖം പോയി ഒരു ലോൺ എടുക്കുന്നതാണ് നല്ലത് അല്ലാണ്ട് ഇതിന്റെ പുറകെ അവസാനം പോലീസ് കേസ് ആയാൽ നമുക്കൊരു നമുക്കൊരു വാലിഡായ് നല്ലൊരു വാലിട് ആയിട്ട് കാണിക്കാൻ പറ്റുന്നൊരു ഒരിതു നല്ല കാണിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതും മുഖാമുഖം പോയി ലോൺ എടുക്കുന്നതാണ് അല്ലാണ്ട് മുഖാമുഖം പോയി എടുക്കുമ്പോൾ ലോണിന്റെ ഭവിഷ്യത്തും എന്തൊക്കെയാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം എല്ലാ കാര്യങ്ങളുമൊക്കെ നമുക്കത് അറിയാനും പറ്റും ഓൺലൈൻ ആയിട്ട് പോവുമ്പോൾ അവർ എന്തൊക്കെയാണ് ഇതിന്റെ പുറകെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല

ലോണിൽ ലോണിന് അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഗുണങ്ങൾ ചില ലോണുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഇന്ട്രെസ്റ് വളരെ കുറവായിരിക്കും ചില ലോണെന്നു പറയുമ്പോൾ ഇന്ട്രെസ്റ് കൂടുതലായിരിക്കും ഓൺലൈൻ ആയിട്ട് ലോൺ എടുക്കുമ്പോൾ അവരെ ഇൻട്രസ്റ്റ് ആദ്യം ഒരു ഒരെണ്ണം പറയുകയും പിന്നെ അത് വളരെയധികം കുത്തനെ കയറ്റുകയും ചെയ്യും അതുകൊണ്ട് അന്നേരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ല അതുകൊണ്ട് മുഖാമുഖം ലോൺ എടുക്കുന്നതാണ് ഏറ്റവും ല്ലത്